അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്ത്യയില് അങ്ങനെ പോയിട്ടൊന്നുമില്ല നമ്മുടെ കേരളത്തില്ത്തന്നെ പല സ്ഥലങ്ങളിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പല ആളുകൾക്കും ഫോട്ടോ എടുത്തു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയില് കുറേ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല ബാംഗ്ലൂര് തമിഴ്നാട് പോണ്ടിച്ചേരി പിന്നെ നമ്മുടെ കേരളത്തിലെ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം അങ്ങനെയൊക്കെ പോയിട്ടൊക്കെയുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോള് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും സാധിച്ചിട്ടുണ്ട് നമുക്ക്